ഒരിക്കലും ഇല്ല വിദ്യാസമ്പന്നനായ ഒരാള് തത്വങ്ങള് പാലിക്കുന്ന നല്ല പെരുമാറ്റമുള്ള ആള് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാന് കഴിയില്ല കാരണം വിദ്യാസമ്പന്നതയും പെരുമാറ്റവും രണ്ടും രണ്ടാണ് സംസ്കാരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും അതായത് ഒരിക്കലും ഒരു വിദ്യഭ്യാസത്തിലൂടെ സംസ്കാരങ്ങള് സാംസ്കാരിക സംസ്കാരങ്ങള് പഠിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തില്നിന്ന് പക്ഷെ അത് സംസ്കാര മൂല്യങ്ങള് ചില ആള്ക്കാര്ക്ക് കിട്ട കിട്ടാന് പ്രയാസമാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടാന് സാധിക്കുന്നില്ല അതായത് ഒരാള്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടോന്നും ഒരുകാര്യമില്ല സംസ്കാരംമായി ഒരാളുടെ സംസ്കാരം നിശ്ചയിക്കുന്നത് അയാളുടെ ചുറ്റുപാട് ആണ് അയാളുടെ ചുറ്റുപാടുകളെയാണ് ചുറ്റുപാടാണ് അയാളുടെ പെരുമാറ്റത്തെയൊക്കെ ആശ്രയിക്കുന്നത് അയാൾ അയാളുടെ ചുറ്റുപാടാണ് ചുറ്റുപാടാണ് ഒരാളുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ നിശ്ചയിക്കുന്നത് വിദ്യാസമ്പന്നനായതുകൊണ്ട് അയാള് നല്ല പെരുമാറ്റ ശീലനാണ് എന്നു നമുക്ക് ഒരിക്കലും പറയാന് സാധിക്കില്ല അങ്ങനെ കുറേ വ്യക്തികളുണ്ട് നല്ലവണ്ണം വിദ്യഭ്യാസം ഉണ്ടായിട്ടും ഒരു വകതിരിവ് ഇല്ലാത്ത കുറേ ആള്ക്കാര് നല്ല പെരുമാറ്റമില്ലാതെ കുറേ ആള്ക്കാരുണ്ട് എന്നാല് വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ പേര് നല്ല സംസ്കാരവും നല്ല പെരുമാറ്റത്തിന് ഉടമയായവരും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്കിത് പറയാന് സാധിക്കും അതായാത് വിദ്യാഭ്യാസവും സംസ്കാരവും ഈ പെരുമാറ്റവും തമ്മില് ഒരു ബന്ധവും ഇല്ല ഒരാൾ വിദ്യാസമ്പന്നനായി ഇരിക്കുന്നത് കൊണ്ട് അയാൾ നല്ല ആളായിരിക്കണം എന്നുമില്ല ഒരാള് വിദ്യാഭ്യാസം ഇല്ലാത്തവനായത് കൊണ്ട് മോശക്കരനാകണം എന്നുമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം അതാണ് അപ്പം വിദ്യാഭ്യാസവും പെരുമാറ്റവും തമ്മില് യാതൊരു ബന്ധവും ഇല്ല എന്ന് തറപ്പിച്ചു പറയാന് പറ്റും അതായത് ഒരിക്കലും അതൊരിക്കലും അത് തമ്മിലൊരിക്കലും ബന്ധമില്ല ഒരാള്ക്ക് നല്ല സംസ്കാരമുണ്ടെങ്കില് ആൾ നല്ല ഒരു വിദ്യാഭ്യാസത്തിനു ഉടമയാണന്ന് പറയാന് പറ്റത്തില്ല ഒരാള്ക്ക് തീരെ സംസ്കാരമില്ലെങ്കില് ഒരാള്ക്ക് തീരെ സംസ്കാരമില്ലെങ്കില് അയാള്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് അതിന്റെ കാരണം എന്നും പറയാന് പറ്റില്ല വിദ്യാഭ്യാസം സംസ്കാരത്തെ കുറച്ച് സ്വാധീനിക്കുന്നുണ്ട് പക് എങ്കിലും ഒരിക്കലും നമുക്ക് അത് തമ്മില് ഒരിക്കലും ബന്ധമുണ്ടെന്ന് പറയാന് സാധിക്കുന്നതല്ല